എൻ്റെ ജീവിതത്തിലെ മംഗളകരമായ സംഭവം എന്ന് പറയുന്നത് ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ് അല്ലെങ്കിൽ ഒരു തയ്യൽക്കട നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാനൊരു ഈശ്വര വിശ്വാസി ആയത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ പോവുകയും അതിന് ശേഷം അതിന് ശേഷമാണ് ഞാൻ കട തുറക്കുകയും ഇവിടെയുള്ള ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയിൽ ഞാൻ പൂക്കളും അർപ്പിക്കുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യും അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കാലെടുത്ത് വെയ്ക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദിനചര്യ കൂടിയാണ് കാരണം ഈശ്വരൻ എന്നത് ഒരു പ്രപ ഈശ്വരൻ എന്നത് ഒരു നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ എല്ലാവരും എല്ലാവരെയും കാത്തു കൊള്ളുന്നത് അദ്ദേഹമാണെന്നുള്ള ഒരു ഇതിൽ എല്ലാ ദിവസവും ഞാൻ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നു അത് എനിക്ക് വളരെയധികം ഒരു സന്തോഷം നൽകുന്ന ഒരു വസ്തുത കൂടിയാണ്